ചിത്രം വരക്കുന്ന സമയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പലപ്പോഴും ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെട്ട സാമഗ്രീ എന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റിങ് ബ്രഷാണ് പെയിൻറ്റിങ് ബ്രഷാണല്ലോ പലപ്പഴും നമ്മുടെ ചിത്ര രചനയെ നമ്മൾ കൂടുതലുപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെന്ന് വച്ച് കഴിഞ്ഞാൽ അത് തന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാ സാമഗ്രി എന്ന് പറയുന്നത് അതിൽ ക്യാമലിൻ കൂട്ടുള്ള ചില ബ്രാൻറ്റുകൾ അതാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഏറ്റവും അധികം താൽപ്പര്യം ഉള്ളതും ക്യാമലിൻ കൂട്ടുള്ള ക്യാമലിൻ പോലെയുള്ള പ്രമുഖ ബ്രാൻറ്റുകൾ തന്നെയാണ് അതൊക്കെ വാങ്ങുന്നതന്ന് വച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ അടുത്തുള്ള ബുക്ക് ഷോപ്പുകൾ അല്ലങ്കിൽ കല കലാസാമഗ്രികൾ വിൽക്കുന്ന ചില സ്റ്റേഷനറി ഷോപ്പുകൾ ഉണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ അവിടെ നിന്നാണ് നമ്മളീ പറയുന്ന സംഭവങ്ങളെല്ലാം പലപ്പഴും വാങ്ങാറുള്ളത് പിന്നെ ചില അവസരങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും അവരോട് പറഞ്ഞിട്ട് ചില നല്ല ബ്രാൻറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വരുത്താറുണ്ട് അതുപോലെ തന്നെ ഞാനും വിദേശത്ത് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ പലപ്പഴും നമ്മൾ വിദേശത്ത് കിട്ടുന്ന പല ബ്രാൻറ്റുകളും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ വരുമ്പഴും നമ്മളാ സാധനങ്ങളു വാങ്ങിച്ചു നമ്മളാ സാമഗ്രികൾ വാങ്ങിച്ച് കൊണ്ട് വരാറുണ്ട് കലാ സാമഗ്രികൾക്ക് വില കൂടുതലാണെന്ന് ഒരിക്കൽപോലും തോന്നിയിട്ടില്ല കാരണം അതിനോടൊരു താൽപ്പര്യം ഉള്ളത് കരണം നമുക്ക് പലപ്പോഴും അതിൻ്റെ വില കൂടുതലാന്ന് ഒരിക്കലും നമുക്കങ്ങനെ അനുഭവപ്പെട്ടട്ടില്ല